നമ്മുടെ പാലക്കാട് ജില്ലയിൽ പ്രാദേശിക പരമായിട്ട് നമുക്ക് നോക്കണം എന്നു പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് കുറേ അധികം സ്കൂളുകൾ ഇപ്പോൾ പത്താം ക്ലാസ് വരെ പഠിയ്ക്കാവുന്ന കുറേ അധികം സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ജോലി അധിഷ്ഠിതമായിട്ട് പഠിയ്ക്കാനുള്ള ഐ എച്ച് ആർ ഡികൾ പോലത്തെ സ്ഥാപനങ്ങളുണ്ട് പിന്നെ ഐ ടി ഐ ഉണ്ട് പിന്നെ ടി ടി സി കോളേജുകളുണ്ട് നമ്മുടെ ഐ ടി ഐകളൊക്കെ നോക്കുകയാണെന്നു പറയുമ്പോൾ നമുക്ക് പ ഈ അധികം പഠിയ്ക്കാൻ അതായത് ഒരുപാട് പഠിയ്ക്കാൻ കഴിവില്ലാത്ത എന്നാൽ നമുക്കീ സ് ഫിസിയ്ക്കലി വർക്ക് ചെയ്യാൻ പറ്റുന്നതുമായ ഇതുണ്ടാവില്ലേ ഇപ്പോൾ വെൽഡിങ് ആയാലും ടർണിങ്ങ് മെഷീനിംഗ് ഡ്രൈവിംഗ് അങ്ങനത്തെ കുറച്ചു കൂടെയും ഫിസിക്കൽ കൂടുതൽ ഫിസിക്കൽ വർക്ക് കാർപെൻ്റർ വർക്ക് ഷോപ്പുകൾ അങ്ങനത്തെ ഇതുള്ള എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിയ്ക്കാനുള്ള അതാണ് നമുക്ക് കൂടുതലായിട്ടു വരുന്നത് അവിടെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതായത് അധികം കാലതാമസം ഇല്ലാതെ മാക്സിമം ഒരു കൊല്ലം അല്ലെങ്കിൽ ആറുമാസം ആറുമാസമോ ഒരു കൊല്ലമോ ഉള്ള സമയ പരിധിയിൽ തന്നെ നമുക്കതിന്റേതായ അതിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളും പെട്ടെന്നു പഠിച്ചെടുത്ത് വേ ബി എ ഇപ്പോൾ വേറെ നമുക്ക് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈ അല്ലെങ്കിൽ വേറെ ജില്ല ഇപ്പോൾ വേറെ പുറത്തു പോയിട്ട് ആണെങ്കിലും ഇപ്പോൾ മെഷീൻ ഓപ്പറേഷനൊക്കെ പുറത്തു നല്ല സെയിൽസ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പുറത്തു നല്ല സ്കോപ്പുള്ള ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ എൻ സി വി ടി സ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ എന്താ പറയുക നല്ല ജോലി അവസരങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഈ എസ് സി എസ് ടി പോലത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒ ബി സി അങ്ങനത്തെ കാറ്റഗറി വരുന്ന കുട്ടികൾക്കാവുമ്പോൾ കൂടുതലായിട്ടുള്ള അതിൽ സീറ്റ് അലോട്ട്മെന്റും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആ സമയത്തു തന്നെ അവർക്ക് അതിൽ കൂടുതൽ പഠിയ്ക്കാൻ പറ്റുകയും അതിൽ നല്ല രീതിയിൽ ജോലി ഇഷ്ടപ്പെട്ട തന്നെ ജോലി കിട്ടാവുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നു ജോലി കിട്ടുകയും ചെയ്യുന്നുണ്ട്